ഹലോ ആ അതെ ആ എന്താ വേണ്ടേത് ആ ആ മുപ്പതെണ്ണം റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ് വരുന്നത് ഏതാ വേണ്ടത് ഏത് ലഡു അതെയോ അതെപ്പോൾ മുതൽ തുടങ്ങും ഫംഗ്ഷൻ എപ്പോൾ അതെയോ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി തരും അല്ല അല്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ ജോലിക്കാരുണ്ടാക്കുന്നത്

അതിൻ്റെ റേറ്റ് നമ്മൾ ഒരു മൂന്നൂറുണ്ടെങ്കിൽ അത് ഒരു ഇരുനൂറ്റമ്പത് ആ ഒരു റേറ്റിൽ ഹോൾസെയിൽ ആക്കിയിട്ട് തരാം നമ്മൾ റീട്ടെയിൽ ആയിട്ട് മുന്നൂറിന് കൊടുക്കുന്നത് ആ നമ്മളത് വെച്ചിട്ട് നമ്മൾ

അതാ ഏത് ഇപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അതിനനുസരിച്ചിട്ട് ആ എല്ലാ റേറ്റും ഉണ്ട് ആ വേറെ ഇത് ഇതുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം ആണെങ്കിൽ കുറച്ച് കൂടും സാധാരണയാണെങ്കിൽ കുറച്ച് ഇത് സാധാരണ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറയും ആ ഇത് ഏകദേശം എത്ര വേണ്ടി വരും നാനൂറോ ആ മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തരാം കുറച്ചൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ഓർഡ്ർ എടുക്കാൻ അങ്ങോട്ട് വരണോ അതോ നിങ്ങൾ ഇവിടുത്തേക്ക് ആ ഡെലിവറി ഉണ്ടാവും ആ ചാർജ് മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തരാം ഇപ്പോൾ നമ്മൾ നല്ല നല്ല സാധനം എല്ലാം ഇട്ട് ഉണ്ടാക്കുന്നത് അല്ലേ

മാക്സിമം നോക്കാം നിങ്ങൾക്ക് എപ്പഴാ ഡേറ്റ് പറഞ്ഞാൽ മതി ആ ഡേറ്റ് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഓർഡറ് ഇതാക്കിയിട്ട് വിളിച്ചാൽ മതി